ഇന്ത്യയുടെ ചരിത്രം എന്നു വെച്ചാൽ മെയ്നായിട്ടുള്ളത് നമ്മുടെ സ്വാതന്ത്യം കിട്ടിയതു തന്നെയാണ് ഇന്ത്യയുടെ ചരിത്രം കാരണമെന്ന് വെച്ചാൽ ഒരു കാലത്ത് നമുക്ക് ബ്രിട്ടീഷുകാർ അടക്കി ഭരിച്ചിരുന്ന ഇന്ത്യയെ മോചിപ്പിച്ച് ഇതാണ് ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് കാരണമെന്ന് വെച്ചാൽ നമുക്ക് നാമറിയുന്ന ഒരു ഇന്ത്യയിലേക്ക് മാറ്റിയത് മെയ്നായിട്ട് നമുക്കിപ്പോൾ നമുക്കൊരുപാട് കുരുമുളകും നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്ന പല സംഭവങ്ങളും നമ്മൾ കൃഷി ചെയ്യുന്ന തുച്ഛമായ സം ഇത് വരുമാനം നമുക്ക് തന്നതിന് ശേഷം അവർ മൊത്തത്തിലെടുത്ത് കൊണ്ട് നമുക്ക് ഒന്ന് പ്രതികരിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു നിമിഷമായിരുന്നു പിന്നെ അഭിമാന നിമിഷം ചരിത്ര നിമിഷമായി തോന്നുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ച് രാത്രി പന്ത്രണ്ട് മണിക്ക് റേഡിയോയിലൂടെയൊക്കെ ഈ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയതെന്ന് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചം വരുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്നുവെച്ചാൽ നമുക്ക് എടുത്തു പറയാവുന്ന നമ്മുടെ മഹാത്മാഗാന്ധി ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ വെടിഞ്ഞ മഹാത്മാ ഗാന്ധി പിന്നെ ജവഹർലാൽ നെഹ്റു ഭഗത് സിങ് സുബാഷ് ചന്ദ്ര ബോസ് പിന്നെ അംബേദ്ക്കർ നമ്മുടെ ഭരണഘടന ഇപ്പം രൂപീകരിച്ചത് അംബേദ്ക്കറാണ് പിന്ന അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് നേതാക്കളുടെ ജീവത്യാഗം കൊണ്ടാണ് നമുക്കിപ്പോൾ ഈ പറയുന്ന ഇന്ത്യയിലേക്ക് മാറിയിരിക്കുന്നത്